ഹലോ ആ ചാമിക്കാലി ട്രാവൽസ് ആ ഇവിടെ ഇപ്പോൾ പിന്നെ ആഴ്ച്ചക്കാഴ്ച്ചക്കുണ്ട് ഇപ്പോൾ ബുക്കിങ്ങ് ഇപ്പോൾ ഒരു അടുത്ത മാസം ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒന്ന് മുതൽ മുപ്പത് വരെ ഇപ്പോൾ മഴയൊക്കെയാണെല്ലോ അപ്പം അങ്ങോട്ടേക്ക് പൊവുന്നില്ല അപ്പം അടുത്ത മാസം കുറച്ച് മ മഴ കുറയുവാണെങ്കിൽ പിന്നെ ഒന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും

പിന്നെ നിങ്ങൾ എത്ര ആളുണ്ടാവും വരുമ്പോൾ ഇരുപത്തിയഞ്ചോ അപ്പോൾ ഇരുപത്തിയാറ് സീറ്റ് ഉള്ള ഒരു ട്രാവലർ ഉണ്ട് അത് മതിയാവുമോ ഹലോ ആ അതിൻ്റെ പാക്കേജ് വരുന്നതിപ്പം മൂന്നാറും പിന്നെ ഇടുക്കി ഇപ്പോൾ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ പോവുന്നത് ആ അപ്പോൾ ഒരു ആ ഇരുപത്തയയ്യായിരം രൂപയാകും പിന്നെ ഇരുപത്ത് പിന്നെ ഇപ്പം ഫുഡിനും അതുപോലെ താമസ സൗകര്യത്തിനും എല്ലാം കൂടെയാണ് ഈ ഇരുപത്തഞ്ച് അപ്പം ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് തരും ആ അപ്പോൾ താമസ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ തന്നെയൊരു പിന്നെ ഒരു അപ്പാർട്ട്മെൻറ് ഉണ്ട് റിസോർട്ട് അല്ല ഒരു അപ്പാർട്ട്മെൻറ് പോലെയാണ് ഇപ്പോൾ ഒരു കോർട്ടേഴ്സും അതുപോലെ ഒക്കെ പോലെ ഒരു ഒരു രണ്ട് നിലയായിട്ടുള്ളത് അപ്പം അവിടെ തന്നെ അവിടെത്തന്നെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ ഭക്ഷണം വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് വരുത്താം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ അവിടെ തന്നെ താമസ സൗകര്യവും പിന്നെ അവിടെ ട്രക്കിങ്ങ് ആണ് അപ്പോൾ അവ് അങ്ങോട്ട് ട്രാവൽ ഇപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത് ആ അപ്പം നിങ്ങളെ അവിടെ വന്ന് പിക്ക് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുവോ എങ്ങനെയാണ് ആ കോഴിക്കോട് എം ജി റോഡിൻ്റെ അവിടെയാണ് അപ്പോൾ

ആ അപ്പോൾ വന്ന് പിക്ക് ചെയ്യാം പിന്നെ അപ്പോൾ അവിടെ എത്തിയിട്ട് ട്രക്കിങ്ങ് ആയിരിക്കും അപ്പോൾ അവിടെ ജീപ്പിലായിരിക്കും ഇരുപത്തഞ്ചാൾക്ക് പറയുമ്പോൾ മൂന്ന് ജീപ്പ് വേണ്ടിവരും അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പെൻസ് ഇതിൽത്തന്നെ പെടുന്നതാണ് ഈ ഇരുപത്തി അയ്യായിരത്തിൽ തന്നെ പെടും ആ അപ്പോൾ പിന്നെ ആ എന്നാൽ ബുക്കിങ്ങ് ഇപ്പോൾ ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്തയാഴ്ച ബുക്ക് ചെയ്യാൻ വിളിക്കുമോ ആ എന്നാൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം പിന്നെ ഏത് ദിവസമാണ് ആ ആ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും

ആ എന്നാൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങളിലായിരിക്കും ബുക്കിങ്ങ് കേട്ടോ എന്നാൽ ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിടാം ആ ആ ആ എന്നാൽ ഓക്കെ ആ